ബൈക്കോടിക്കുമ്പോൾ ഏറ്റോം കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഹെൽമറ്റെന്നുള്ളത് ഇപ്പോൾ കുട്ടികളാരും അധികം ഹെൽമെറ്റ്സ് യൂസ് ചെയ്ത് ഒന്നും നടക്കാറില്ല ഏകദേശം ഒരു പതിനഞ്ച് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് ഇരുപത്തി അഞ്ച് വരെയുള്ള പ്രായത്തിന്റെ ഇടയിലുള്ള ആൾക്കാർ ഒരിക്കലും ഹെൽമെറ്റ് വെച്ച് നടക്കുന്നത് തി വളരെ അധികം കുറവാണ് അത് വളരെ അധികം അപകടങ്ങളിലേക്കും ഒരുപാട് അധികം അപകടങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഹെൽമെറ്റ് വെയ്ക്കാതെ ഓടിക്കുക തലകൾ ഉണ്ടാവുന്ന പരിക്കുകൾ വളരെ അധികം കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഹെൽമെറ്റ് വെച്ച് ഓടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ കുറെ അധികം ആൾക്കാർ വെക്കാതെ ഇരിക്കുന്നത് എന് കാരണം എന്ന് പറയുന്നത് മുടി കൊഴിയൽ അതുപോലെ തന്നെ ഈ ഹെൽമെറ്റ് വെയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വയ്ക്കുമ്പോൾ കാരണം ഒരു മെ രസം ഉണ്ടാവില്ല എന്ന് പറയുന്നത് അതെക്കെയാണ് ഏറ്റോം കൂടുതൽ കാരണങ്ങളായിട്ട് വരുന്നത് ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാറില്ലാത്തതിന്റെ ഏറ്റോം ഇത് വരുന്ന കാരണങ്ങൾ ഹെൽമെറ്റ് വെച്ച് ഓടിക്കുമ്പോൾ ഒന്ന് തല തല്ലി വീണാൽ പോലും തല വലിയ കാര്യമായിട്ട് പരിക്കുകൾ മേലിൽ പരിക്ക് ഉണ്ടെങ്കിലും തലയ്ക്ക് പരിക്കില്ലാതെ രക്ഷപ്പെടാൻ ചാൻസൊണ്ടാവും അത്കൊണ്ട് നല്ല വലിയ ആക്സിഡൻ്റുകളൊക്കെ ആണെങ്കിൽ ഹെൽമെറ്റൊണ്ടെങ്കില് തന്നെ ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ട് തന്നെ രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് കാരണം തലയ്ക്ക് പരിക്ക് വരുക തലയ്ക്ക് പരിക്ക് പറ്റുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അധികം മരണ ചാൻസുകൾ അധികം കൂടുന്നത് അയാള് മരിക്കാൻ ഉള്ള ചാൻസ് വളരെ അധികം കൂടാറുണ്ട് അപ്പോൾ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് വളരെ അതിനതിനായിട്ട് പോലീസ് അതുപോലെ തന്നെ എം വി ടിയൊക്കെ കരുത്ത് പിന്നെ ഒരുപാട് തന്നെ ഇനിയും മുന്നോട്ട് വരേണ്ടതുണ്ട് കാരണം ഹെൽമെറ്റ് വെക്കാതെ പോകുന്നവർക്ക് ഇപ്പോൾ ഒരു സ്കീമും പുതിയായിട്ട് ഇറക്കിയിട്ടുണ്ട് അതായത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വേസ്റ്റ് അവിടിവിടെ വലിച്ച് എറിയുന്നവരുടെ ഫോട്ടോ എടുത്തയച്ച് കൊടുത്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എന്ന് പറഞ്ഞ സ്കീമ് അതേ സ്കീമ് ഇതേ പറയ് ഈ പറയുന്ന ഹെൽമെറ്റ് വെയ്ക്കാതെ വരുന്നവർക്കും അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അതായത് ഫോട്ടോ എടുത്തയച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ഹെൽെറ്റില്ലാണ്ട് ഫോട്ടോ എടുത്ത് വണ്ടീടെ നമ്പറും ഹെൽമറ്റും കിട്ടാവുന്ന രീതിയിൽ ആളെ കിട്ടാവുന്ന രീതിയിൽ ഹെൽമറ്റ് വണ്ടി നമ്പറ് കിട്ടാവുന്ന രീതിയിൽ ഫോട്ടൊയെടുത്ത് അയച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്കും ഫണ്ട് കൊടുക്കാം അല്ലെങ്കിൽ പെറ്റിടയ്ക്കുന്നതിന്റെ ഒരു ഇത്ര ശതമാനം കൊടുക്കാം എന്നുള്ള രീതിയിൽ പറയുവാണെങ്കിൽ എല്ലാവരും തന്നെ ഹെൽമെറ്റ് വെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ എടുക്കുന്ന മുൻകരുതല് എന്ന് പറയുമ്പോൾ ജാക്കറ്റ്സ് ബൂട്സ് അതുപോലെ തന്നെ ഒപ്പം റയ്ജിങ് അതുപോലെ ബൈക്ക് ബൈക്ക് റേസിങ്ങിനായിട്ട് പോവുന്ന ആൾക്കാരുണ്ടാവും അവർ ജാക്കറ്റ്സ് യൂസ് ചെയ്യണം അതായത് ബോഡീന വീണാൽ അധികം തോല് പോവാത്ത രീതീലുള്ള ജാക്കറ്റ്സ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഹെൽമെറ്റ് വെക്കുമ്പം തന്നെ വൈസർ ഉള്ളത് കൊണ്ട് അധികം കണ്ണിൽ പൊടി പോവാണ്ട് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ ഗ്ലാസസ്സ് വയ്ക്കുന്ന ആൾക്കാർ ഉണ്ട് പിന്നെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത് അപ്പോൾ കരുതാറുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ മെയിൻലി ഫോൺ മാത്രാണ് കരുതാറുള്ളു കാരണം എല്ലാ രേഖകളും നമ്മുടെ ഫോണിൽ അവൈലബിളാണ് നമ്മുടെ ഫോണുകൾ ഇപ്പോൾ ആർ സി ബുക്കാണേലും അതുപോലെ ലൈസൻസാണേലും എന്നാൽ പൊല്യൂഷൻ്റെ പേപ്പറാണേലും എല്ലാം തന്നെ നമ്മുടെ ഫോണിൽ രേഖപ്പെടുത്താവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് ഫോണിൽ എല്ലാം ഡിജിലോക്കർ എന്ന സംവിധാനത്തിലൂടെ എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഒരിക്കലും കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല ബാക്കിയെല്ലണം കൂടെ സ് പക്ഷേ ഈ ഡോക്കുമെൻസെല്ലാം സേഫായിട്ട് ഉണ്ടാവും ഉണ്ടായിരിക്കേണ്ടതാണ് ഇപ്പോൾ കാറിലാണെങ്കിൽ നമുക്ക് കാറിന്റെ ഡാഷ്ബോഡിൽ വെക്കാവുന്നത് ആണ് പക്ഷേ ബൈക്കെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ വെക്കാന് പറ്റത്തില്ല ബൈക്കിന്റെ സ്കൂട്ടറാണേൽ നമുക്ക് സ്കൂട്ടറിനകത്ത് വെക്കാം ഡിക്കിക്കകത്ത് വെക്കാം പക്ഷേ ബൈക്കിൽ അധികം വെക്കാനുള്ള ചാൻസസ് ഇല്ല അപ്പോൾ ഉണ്ട് സീറ്റിനടിയിൽ വെക്കാനുള്ള ഒരു കവറേജൊണ്ട് പക്ഷേ എങ്കിലും എല്ലാവരും തന്നെ കയ്യിൽ ഈ ഫോൺ കരുതണം കരുതണ്ടേ എവിടെ പോയാലും ഫോണെല്ലാരും കൊണ്ടൊം ഫോണിപ്പോൾ നമ്മുടെ ഇടയിൽ ഏറ്റോം കൂടുതൽ ആയവശ്യമായിട്ടുള്ള ഒരു സാധനമായി മാറിയിരിക്കുന്നു ഫോണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഫോണിൽ തന്നെ എല്ലാ കാര്യങ്ങളും കരുതുകേം അത് വയ്ക്കുകേം ചെയ്യണം